ആ ആ ആ ആ ആ ആ എന്താണ് ആവശ്യം ആ അതെ അതെ ഹൗസ് ബ്രോക്കർ ആണ് ആ വീട് കോഴിക്കോട് ഫാറൂക്ക് ഭാഗത്താണോ ആ ഫാറൂക്ക് ഭഗത്താണെങ്കിൽ നമുക്ക് നല്ലൊരു വീട് ഇപ്പം ഉണ്ടല്ലോ നിങ്ങൾക്ക് എത്ര റൂം വേണം ഒറ്റ റൂം ഉള്ളതാണോ ആ ആ പിന്നെ കാന്റീൻ അതൊക്കെ വേണോ വില്ല ആയിട്ടുള്ളത് ഒരെണ്ണം പോലും ഇല്ല ഇതിൽ ഒരു രണ്ട് മൂന്ന് റൂം ഒക്കെ വരും റൂം വില്ല ആകുമ്പോൾ രണ്ട് മൂന്ന് റൂം ഉള്ള റൂംസ് ഒക്കെയാണ് വരിക ആ അത് സാധാ റൂം സാധാ വീടൊക്കെയാണ് അത് ആ അത് നമ്മൾ റെൻറ്റ് ഏകദേശം ആകുന്നത് പതിനായിരം രൂപ ആകും കാരണം അത് എ സി കാര്യങ്ങൾ ഫുൾ സെറ്റപ്പ് ആണ് ഫു റൂമിൽ മാത്രമല്ല ഫുൾ എ സി ആണ് റൂമിൽ വീടുള്ളത് നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ റെഡി ആക്കാം പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾക്ക് എത്ര മാസത്തിന് വേണ്ടി വരും

ആ ആ ആ നമുക്ക് അതിന് ഡിസ്കൗണ്ട് ചെയ്യാം പ്രശ്നം ഒന്നുമില്ല ഏതായാലും ഇപ്പം അവൈലബിൾ ആ വീട്ടിൽ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പം നിങ്ങൾ വന്ന് ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ വിളിക്കാം

ആ കമ്പനി നമ്മളുടെ കമ്പനി തന്നെയാണ്

ഞായറാഴ്ച ലീവ് ഉണ്ടാകും ആ മ്മ് മ്മ് അപ്പോൾ ഓക്കെ എന്നാൽ താങ്ക്യൂ